എനിക്കൊരു ചെടി തോട്ടമുണ്ട് അതിൽ ഇലച്ചെടികളും റോസാച്ചെടികളും മുസാണ്ടാ കണ്ണാടി ചെടികൾ അങ്ങനെ പല ഐറ്റംസ് ചെടികളും ഉണ്ട് ഞാൻ ഇതിനെയെല്ലാം നല്ല എൻ്റെ കുട്ടികളെ പരിപാലിക്കുന്ന പോലെയാണ് ഞാൻ അതിനെയൊക്കെ പരിപാലിക്കുന്നത് ആ ചെടികളിൽ ഓരോ പൂ വിരിയുമ്പോൾ ഉള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് മനോഹരമായി പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ എന്ത് ഭംഗിയാണ് അത് ഏത് ചെടിയും ആയിക്കോട്ടെ അത് നമ്മുടെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കും രാവിലെ എണീറ്റ് വരുമ്പോൾ അവരുടെ അവയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഉള്ള സുഖം ഒന്ന് വേറെ തന്നെയാണ് പലരും വന്ന് എൻ്റെ പൂന്തോട്ടം വന്നു കാണുകയും അതിലെ പൂക്കൾ ആസ്വദിക്കുകയും അതിൽനിന്നുള്ള ചെടികൾ അവർ പറിച്ചുകൊണ്ട് പോകുകയും ഒക്കെ ചെയ്യുമ്പോഴത്തെക്കും നമ്മുടെ മനസ്സിന് വല്ലാത്ത ആനന്ദമാണ് കിട്ടുന്നത് അതിന് വൈകുന്നേരങ്ങളിലും രാവിലെ ഒക്കെ ഞാൻ ചെടിക്ക് വളം ഇടുകയും അതിനു വെള്ളം ഒഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തെക്കുള്ള നമ്മുടെ മനസ്സിൻ്റെ ആ വിഷമങ്ങളും എല്ലാം നമ്മൾ അതിലേക്ക് അർപ്പിക്കുകയാണ് അങ്ങനെ എൻ്റെ ചെടികളുടെ ഇത് ഭംഗി കണ്ട് എത്രയോ പേർ വന്ന് എൻറ്റടുക്കൽ വന്ന് ഇത് കാണുകയും ഒരു തോട്ടം തന്നെയാണ് എനിക്കുള്ളത് അതിലെ പല പൂക്കളും വിരിഞ്ഞു വരുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ ചിലപ്പോഴൊക്കെ ഒന്ന് അതിൽ വന്ന് വണ്ടുകളും പൂമ്പാറ്റയും വന്ന് തേൻ കുടിക്കുന്നതും കൊച്ചു കൊച്ചു കുരുവികൾ വന്ന് തേൻ കുടിക്കുന്നതൊക്കെ കാണുമ്പോൾ ഉള്ള സന്തോഷം അത് ഒന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് അതാണ് എൻ്റെ പൂന്തോട്ടത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്